ഇപ്പോൾ വയനാട് ജില്ലയിലെ ആളുകൾ നിത്യേന നേരിടുന്ന പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇപ്പം ഏത് ചൂടുകാലത്ത് ആണെങ്കിലും നല്ല രീതിയിൽ ഉള്ള തണുപ്പ് ഒരു ചെറുതായിട്ട് ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഉണ്ടാവാറ് പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല രീതിയിൽ ഉള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളും കാരണം മാറ്റങ്ങളൊക്കെ വന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉള്ള ചൂട് ഒക്കെ അനു അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി നമ്മളിപ്പം താഴെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഗ്രി അതായത് പാലക്കാട് ആ ഭാഗങ്ങളിൽ ഒക്കെ നല്ല രീതിയിൽ ഉള്ള ചൂടൊക്കെ അനുഭവപ്പെടുന്ന ടൈമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഏപ്രിൽ മാസമൊക്കെയാണ് പക്ഷെ നമുക്ക് ഈ സമയം തന്നെ ആ ഒരു ചൂട് കാര്യങ്ങളൊക്കെ ഇവിടെ വരാൻ തുടങ്ങി അപ്പോൾ നല്ല രീതിയിൽ ഉള്ളൊരു കാലാവസ്ഥ വ്യതിയാനം മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇപ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പോഷക ആഹാര കുറവ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എല്ലാ സാധങ്ങൾക്കും വില വിലയും എല്ലാം എല്ലാം കുത്തനെ കൂടിയത് കൊണ്ട് ആൾക്കാർക്ക് ഭക്ഷണങ്ങൾ പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ വന്ന് തുടങ്ങിട്ടുണ്ട് പിന്നെ ഗതാഗത സൗകര്യം ചില സ്ഥലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇപ്പം നടന്ന് പോകാൻ വരെ പറ്റാത്ത ഒരു സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട് അതായത് പണ്ട് മഴക്കാലത്ത് ഇടിഞ്ഞു പോയ കുറേ സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട് അതൊന്നും ഇതുവരെ നന്നാക്കിട്ട് പോലും ഇല്ല പിന്നെ മലേറിയ അങ്ങനത്തെ പല ര പല രീതിയിലുള്ള രോഗങ്ങള് എലി പനി അങ്ങനത്തെ പല രീതിയിൽ ഉള്ള രോഗങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്